എനിക്ക് ജീവിതത്തില് നേരിടേണ്ടി വന്ന വെല്ലുവിളികളെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാന് ഒരു പത്താം ക്ലാസ്സ് അതായത് ആദ്യത്തെ വെല്ലുവിളി എന്ന് വെച്ച പത്താം ക്ലാസ്സ് എങ്ങനെയെങ്കിലും പാസ്സ് ആവുക അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു അത് എങ്ങനെയെക്കെയോ പാസ്സായി അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തോന്നിയ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതെ അതുപോലെ പ്ലസ് ടു ഡിഗ്രി പിജി വരെ കഴിഞ്ഞു പക്ഷെ എന്നാലും എന്താ പറയുക നമ്മള് പഠിച്ചതിന് അനുസരിച്ചുള്ള ഒരു ജോലി കിട്ടിയിട്ടില്ല അപ്പം അതായത് നമ്മുക്ക് പഠിച്ചതിന് അനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല വേറെ എന്തേലും ജോലിയാണ് കിട്ടുന്നത് അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ആയിട്ട് തോന്നിയേക്കുന്ന കാരണം നമ്മക്ക് പഠിച്ചൂന്ന് ഉള്ളൊരു ഇതേയുള്ളു ആ സർട്ടിഫിക്കറ്റിൽ കാര്യമില്ലല്ലോ നമ്മക്ക് അതിനൊരു വാല്യൂ വേണ്ടേ ആ വാല്യൂ ഇതുവരെ എനിക്ക് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല